എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്ലാസ്റ്റിക്ക് കണ്ടയ്നേഴ്സാണ് അപ്പോൾ പ്ലാസ്റ്റിക്ക് നമുക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിനു തന്നെ ആപത്തായിട്ടുള്ള ഒന്നാണ് പ്ലാസ്റ്റിക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ അതായത് നമ്മുടെ ഇന്ത്യയും അല്ലെങ്കിൽ ലോകം തന്നെ നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്ളാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രല്ല അല്ലാണ്ട് തന്നെ അതായത് പ്ലാസ്റ്റിക്ക് കൂട്ടിയിട്ട് കത്തിക്കുക അങ്ങനത്തെ നല്ല രീതിലുള്ള പരിപാടികള് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓസോൺ പാളിക്കൊക്കെ വിള്ളലും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക്ക് നല്ലൊരു സാധനമല്ല നമ്മളിപ്പോൾ കടയിൽനിന്നു വാങ്ങുന്ന മിനറൽ വാട്ടറാണെങ്കിലും സ്പ്രൈറ്റ് കൊക്കക്കോള ഇതിനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്ക് കുപ്പികളാണ് പക്ഷെ ഇതൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുറമേ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുമെങ്കിലും ആരും അങ്ങനെ പുറമേ കൊടുക്കാണ്ട് ചിലർ കത്തിച്ചൊക്കെ കളയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം നമ്മുടെ ഇതിനു ഭയങ്കര വിള്ളലും കാര്യങ്ങളൊക്കെ വരുന്നു നമുക്ക് ശ്വാസം കിട്ടാണ്ടാവുന്നു അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും